എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് പറ്റിയൊരു തെറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വർക് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യവും ചെയ്യുന്നത് നമ്മുടെ ടീമിലുള്ള ആൾക്കാരായിരിക്കും എപ്പോഴും മാനേജറിന് വന്ന് ഇടപെട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതൊന്നും മാനേജറിന് നോക്കാൻ സമയമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനേജർക്ക് നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണോ പുതിയ പുതിയ അപ്ഡേറ്റ്സുള്ളത് അല്ലങ്കിൽ പഴയ വർക്കിലുണ്ടായിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് ഇവയെല്ലാം നമ്മൾ വീക്കിലി അതായത് ആഴ്ച തോറും നമ്മൾ മാനേജറെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒന്നുകിൽ ഒരാഴ്ച തീരുമ്പോൾ അവസാനത്തെ ദിവസം വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച്ച തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച കഴിഞ്ഞ ആഴ്ചയിലത്തെ വർക്ക് എന്താണ് നടന്നത് എന്താണ് നമ്മുടെ ടീമിൽ സംഭവിച്ചത് ആരൊക്കെ എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ മാനേജറെ പറഞ്ഞ് ബോധ്യമാക്കി ആക്കുന്ന രീതിയിലുള്ള ഒരു മെയില് നമ്മൾ മാനേജർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും അത് ഓരോ ആഴ്ചയിലും ടീമിലുള്ള ഓരോ വ്യക്തികളാണ് ആ മെയില് മാനേജർക്ക് സെൻഡ് ചെയ്യേണ്ടത് അത് ഓരോ ആഴ്ചയിലും ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ഒരാഴ്ചയിൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വന്നപ്പോൾ ഞാൻ ആ ആഴ്ചയിൽ ചെയ്ത വർക്കെല്ലാം കളക്ട് ചെയ്ത് വെച്ച് മാനേജർക്ക് മെയിൽ അയച്ച് കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതിന്റെയിടയിൽ എമർജൻസി ആയിട്ട് വേറൊരു വർക്ക് കൂടി നമ്മളെ ടീമിലേക്ക് വന്നു അപ്പോൾ ആ വർക്ക് ചെയ്യാനായിട്ട് എന്നെ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് കോൺടാക്ട് ചെയ്തു കോൺടാക്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് മാനേജർക്ക് മെയിൽ അയച്ചത് മാത്രം അയച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മറ്റേ വർക്കിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളു അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ മെയിൽ അയക്കാനായിട്ട് ധൃതിയായി അപ്പോൾ നമ്മളീ മാനേജർക്ക് മെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ വർക്ക് ചെയ്തത് ആ വർക്ക് എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലൈൻ ചെയ്ത് ആ മെയിലിൽ കാണിക്കുകയും അതുപോലെ അതിൻ്റെ പ്രൂഫും നമ്മളാ മെയിലിൽ അറ്റാച്ച് ചെയ്യുകയും വേണം അപ്പോൾ ഞാൻ ഈ വർക്ക് വന്ന സമയത്ത് കംപ്ലീറ്റ് എന്താ ചെയ്തത് എന്നുള്ള കാര്യം ആ മെയിലിൽ ടൈപ്പ് ചെയ്ത് വെയ്ക്കുകയും പക്ഷേ തിരക്ക് പിടിച്ചതിനാൽ ഞാൻ ഈ കഴിഞ്ഞ ഈ കണ്ട പ്രൂഫുകളൊന്നും അതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് വിട്ട് പോയി അങ്ങനെ അറ്റാച്ച് ചെയ്യാണ്ട് ഞാൻ അത് ശ്രദ്ധിക്കാണ്ട് ആ ഒരു തിരക്കിട്ട് ധൃതിപ്പെട്ട് ഞാനാ മെയില് മാനേജർക്ക് സെൻഡ് ചെയ്തു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാനേജർ എന്നെ ഡയറക്റ്റ് കോള് ചെയ്തിട്ട് പറഞ്ഞു പ്രൂഫില്ലാണ്ട് എന്തിന് മെയിലയച്ചു എന്നൊരു തെറ്റെനിക്ക് പറ്റി അപ്പോൾ ഞാൻ മാനേജറോട് സോറി പറഞ്ഞു അതിനി ആവർത്തിക്കില്ലാന്നൊക്ക പറഞ്ഞു ജസ്റ്റ് അതൊരു വലിയൊരു തെറ്റല്ലാ തെറ്റാണ് ആക്ച്വലി പക്ഷേ മാനേജർ അതിന് ഫസ്റ്റ് ടൈം എൻ്റെ ഭാഗത്തുനിന്ന് വന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റി എന്നിട്ട് ഞാൻ ആ കറണ്ട് മെയിൽ എന്താണോ ആ മെയിൽ അയച്ചത് അതിനെ തിരിച്ച് റിവോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അതിലുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത ആ മെയിലിനെ ഞാൻ അൺസെൻഡ് ചെയ്തു ചെയ്തിട്ട് മാനേജർക്ക് പുതിയ മെയില് സെൻഡ് കണ്ടൻറ്റ് വച്ചിട്ട് എല്ലാ പ്രൂഫും അറ്റാച്ച് ചെയ്ത് നല്ലൊരു പുതിയ മെയിലായിട്ട് വീക്കിലി അപ്ഡേറ്റ് മാനേജർക്ക് സെൻഡ് ചെയ്ത് അങ്ങനെയാ തെറ്റിനെ ഞാൻ തിരുത്തുകയും മാനേജർക്ക് അപ്പോഴത് അപ്പോളജയ്സ് ചെയ്ത് അടുത്ത ഒരു മെയിൽ അയക്കുകയും ചെയ്തു